ഇപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് കൂടുതലായിട്ടും വരുന്ന ഈ സർക്കാറിൻ്റെ എന്താണ് പറയുക മോശമായ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഒക്കെ ചെയ്യുന്നത് അവർക്ക് എന്താണ് വേണ്ടപെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട നീതിയും ന്യായവും ഒന്നും കിട്ടേണ്ടി കിട്ടാറില്ല കാരണം അവർക്ക് എന്താണ് പറയുക സാധാരണക്കാർ എന്ന് ഉള്ളവരെല്ലാം കുറച്ച് എന്താണ് പറയുക പിടിപാടുള്ളവർക്കൊക്കെയാണ് കൂടുതലും സർക്കാർ ജോലിക്കാരൊക്കെ എന്താണ് പറയുക അവരുടേതായ മുൻഗണന നൽകുള്ളൂ പിന്നെ കുറ്റകൃത്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താണ് പറയുക ചെറിയ ചെറിയ കുറ്റങ്ങൾക്കൊക്കെ വലിയ വലിയ ശിക്ഷകൾ നൽകുകയും അതേ സ്ഥാനത്ത് ഇപ്പോൾ വലിയ വലിയ കുറ്റങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കുറ്റ എന്താണ് പറയുക ശിക്ഷ നൽകുകയും അവരെ പുറത്ത് വിടുകയും വീണ്ടും അവർ അതുതന്നെ ചെയ്യുകയും ചെയ്യുന്നതാണ് സമൂഹത്തിലൊക്കെ കണ്ടുവരുന്നത് അതൊക്കെ എന്താണ് പറയുക സർക്കാരിൻ്റെ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ എന്താണ് ആലുവയിൽ ഒരു പെൺകുട്ടി അഞ്ചുവയസ്സുള്ള പെൺകുട്ടിനെ പീഡിപ്പിക്കുക ഒക്കെ ഉണ്ടായി അങ്ങനെത്തെ പീഡനം പോലെ ഉള്ളവയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു കുറച്ച് നാളത്തേക്ക് ചെറിയ ഒരു ശിക്ഷ നൽകുകയും പിന്നെ അവരെ പുറത്ത് വിടുകയും അതേ സ്ഥാനത്ത് എന്താണ് പറയുക ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അത് വലിയ വലിയ രീതിയിൽ ആക്കുകയൊക്കെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ രീതി കാരണം അവർക്ക് വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ചെയ്ത് ഇത് ആക്കിയ പോലെയൊക്കെയാണ് കാണുന്നത് അതൊക്കെ എന്താണ് പറയുക സർക്കാർ മെച്ചപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്